തീർച്ചയായും ഞാൻ ധ്യാനവും പ്രാണായാമവും യോഗ ചെയ്യുന്ന ഒരാളാണ് കുറച്ച് ഒരു ഒരു മണിക്കൂറ് ഒരു ദിവസം ഒരു മണിക്കൂറ് വേണ്ട ഒരു അര മണിക്കൂറെങ്കിലും നമ്മള് യോഗയ്ക്ക് വേണ്ടി രാവിലെ സൂര്യനമസ്കാരം തൊട്ട് ഒരു നാല് മണിക്കോ അഞ്ച് മണിക്കോ വേണ്ട ആറ് മണിക്ക് എഴുന്നേറ്റിട്ട് ചെയ്താലും നല്ലതാണ് ജീവിതത്തില് ഒത്തിരി നല്ല പങ്ക് വഹിക്കുന്നുണ്ട് നമ്മള് മനസ്സ് കാമായിരിക്കാന് നമ്മള് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ദുഷ്ചിന്തകളെയൊക്കേ അകറ്റി നമ്മുടെ മനസ്സില് നല്ലൊരു ശാന്തത കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മള് പിന്നേ എനിക്ക് എനിക്ക് ഭയങ്കരൊരു ഇതാണ് ഞാന് പിന്നേ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ നമുക്ക് തോന്നാൻ കാരണമെന്താന്ന് എനിക്ക് ഒരു കാര്യം കിട്ടിയാൽ ഞാൻ ഭയങ്കര അസ്വസ്ഥത ഉള്ള ഒരാളാണ് അതിനെ കുറിച്ച് തിരിച്ചും മറിച്ചും ചിന്തിച്ച് മുഴുവൻ ടെൻഷനടിച്ച് ബി പി കൂട്ടുന്നൊരാൾ പക്ഷേ യോഗ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് അങ്ങനൊരു ചിന്ത വരാതെ മനസ്സിനെ മൈൻഡിനെ കണ്ട്രോളെയ്യാൻ പറ്റുന്നുണ്ട് പിന്നേ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് എക്സ്സൈസ് നമ്മള് ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്ന സമയം കൊണ്ട് നമ്മുടെ നല്ല മെയ് വഴക്കത്തോടെ നമ്മുടെ ശരീരം വഴങ്ങുകയും ചെയ്യും ഉം നമുക്ക് ഇങ്ങനെ യോഗ ചെയ്യുന്നതിലൂടെയും നമ്മുടെ മൈൻഡ് കോൺട്രോളിലാവുന്നു ശരീരം നല്ലതാണ് എനിക്ക് യോഗയില് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തില് യോഗ എന്നുള്ള യോഗാഭ്യാസം എൻ്റെ ജീവിതത്തില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്